പാട്ടുകാർ സാധാരണയായി വരുത്തുന്ന ചെ തെറ്റുകൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പല ഗായകരും ഇപ്പോൾ ഗായകരായാലും ഗായികമാരായാലും പലരും ഇപ്പോൾ അനുകരിക്കുന്നത് മറ്റു പല എന്താ മറ്റു പല ഗായകന്മാരെ അനുകരിച്ചു പാടുക അല്ലാ പിന്നെ അതായത് സ്വന്തം ശബ്ദത്തിൽ പാടാതെ സ്വന്തമായിട്ടൊരു ശബ്ദമുണ്ടായിട്ട് അതിൽ പാടാതെ മറ്റ് പല ഗായകരെയും പിന്നെ അനുകരിച്ചു കൊണ്ട് അങ്ങനെ പാ പാടുന്ന ആൾക്കാരാണ് മലയ മലയാളത്തിൽ മലയാള സിനിമയിലധികവും പഴയ കാല പഴയകാലത്തെ ഗാനങ്ങളെന്നു പറഞ്ഞാൽ വളരെ കേൾക്കാൻ ഇമ്പമുള്ള ഗാനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് സംഗീത സംവിധായകരൊക്കെ അവരുടെ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ കേൾക്കാനും വളരെ ഇമ്പമുളള പാട്ടുകളായിരുന്നു അതിൽ അത് നമ്മുടെ മനസ്സെന്നോ അല്ലെങ്കിൽ നമ്മൾ മനസ്സെന്ന് ഒരിക്കലും മായാത്ത അത്ര അതിമനോഹരമായ ഗാനങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തോരോരോ പാട്ടുകേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം പോയിട്ട് അതൊന്ന് എന്താ കേട്ട് നോക്കാൻ പോലും തോന്നില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അരോചകമാണ് നമുക്ക് കേ സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് പിന്നെയെന്നു പറഞ്ഞാൽ ഇപ്പോളേതെന്നു പറഞ്ഞാൽ അന്യഭാഷയിൽ നിന്നും വരുന്ന പാടുന്ന ആളുകൾ അവൾ അവർ മലയാള ഭാഷയിൽ എന്താ പാടുമ്പം തന്നത് കേൾക്കാൻ മലയാളം ഇവിടെ നല്ലവണ്ണം പഠിച്ച് നല്ലവണ്ണം അറിയുന്നാൾക്കാർ പാടിയാൽ കേൾക്കാനത്ര ഇതുണ്ടാകില്ല പക്ഷേ അന്യ ഭാഷയെന്നു വന്നു പാടുന്ന ആൾക്കാർ അവർ വളരെ ഒരു പിന്നെ ഒരു വാക്ക് പോലും തെറ്റാതെ നല്ല ഉച്ഛാരണ ശുദ്ധിയോടു കൂടിയിട്ടാണ് ഗാ പാട്ടുകളാലപിക്കുന്നത് അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് എന്താണ് പക്ഷേ അത് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനൊരു മലയാളം മലയാളം സി ഇതിനു തന്നെ മലയാള സിനിമക്കന്നൊരു മോശമാണ് മോശം ഇതാണ് കാരണം ഇവിടിത്രയും ആളുകളുണ്ടായിട്ട് പുറത്തു നിന്നൊരാൾ വന്നിട്ട് അവർ നല്ല രീതിയിൽ പാടി പോകുമ്പോൾ ഇവിടെ ഈ ഭാഷ ഈ പാട്ടുകളേത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് സംഗീത ലോകത്തിൽ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യണത്